ഞാനെന്റെ മകന്റെ ബർത്ത് ഡേ ആയിരുന്നു ഈ മാസം ഇരുപത്തി ഏഴിന് അങ്ങനെ ഞാൻ ബർത്ത് ഡേ ഐറ്റംസ് ഓൺലൈനിൽ നിന്ന് മേടിക്കാം എന്ന് കരുതി പുറത്ത് ഷോപ്പിൽ ചോദിച്ചു നോക്കുമ്പോൾ ഓരോന്നിനും തന്നെ നൂറിൽ കൂടുതലാണ് വിലയുള്ളത് അപ്പം പേയ്മെൻറ് കുറച്ചു കൂടുതലാണ് എന്ന് തോന്നിയപ്പോൾ ഞാൻ ഓണ്ലൈനില് നിന്നും ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഓണ്ലൈനിൽ സെര്ച്ച് ചെയ്തു നോക്കിയപ്പോൾ നല്ലൊരു ഐറ്റംസ് ഐറ്റം കണ്ടു അങ്ങനെ അത് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു ഹസ്ബന്റിനോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് വേണ്ട എന്നൊക്കെ പറഞ്ഞു എന്നാലും ഞാൻ അത് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തു അത് വരുന്ന വരെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട അത് വേണ്ട വേറെ നമുക്ക് മേടിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഓർഡർ ചെയ്ത് ഏഴു ദിവസം കഴിഞ്ഞപ്പോൾ അത് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നു കൊണ്ടു തന്നു അങ്ങനെ അത് മേടിച്ച് പൈസ ഒക്കെ കൊടുത്ത് വീട്ടിലേക്ക് വന്ന് അത് നോക്കിയോ നോക്കിയ നോക്കിയപ്പം നല്ലൊരു പ്രോഡക്റ്റ് ആയിരുന്നു ലൈറ്റും സീറോ ബള്ബ് എല് ഇ ഡി ബള്ബ് ഒക്കെ ഉള്ള ഒരു എൽ ഇ ഡി ബള്ബും കര്ട്ടനും ബലൂണ്സും ഒക്കെ ഉള്ള ഒരു കിറ്റാണ് ഞാന് മേടിച്ചത് പിന്നീട് ഞാനാ ബള്ബ് കത്തിച്ചൊക്കെ നോക്കി പിന്നെ ബര്ത്ത് ഡേക്ക് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല സാ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു നല്ല സാധനം ആണ് ഓണ്ലൈനില് ഉള്ളത് എന്നൊക്കെ പറഞ്ഞു